ആ ഇത് എനിക്ക് പിന്നെ തലേൻ്റ സ്കാനിംഗ് എടുക്കാൻ ആയിരുന്നേ എനിക്ക് തല അടിച്ച് വീണതാണ് അപ്പം മൂക്കിൽനിന്ന് ചെറുതായിട്ട് ബ്ലഡ് വരുന്ന ഒരു പ്രശ്നം ഉണ്ട് പിന്നെ തലകറക്കം തലവേദനയും ആ തലവേദന ഉണ്ട് പിന്നെ ചെറിയ ഒരു തലകറക്കം ഉണ്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കാണിച്ചാൽ അന്ന് പിന്നെ വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പം കാണിച്ചില്ല അത് ഇപ്പം നോക്കുമ്പം പിന്നെ ഇപ്പം ആയിട്ട് മൂക്കിൽനിന്ന് ബ്ലഡൊക്കെ വരാൻ തുടങ്ങി ഇത് ഇവിടെ പിന്നെ ബാംഗ്ലൂർ അതേയല്ലേ ഉം ആ ആ ഇല്ല പുറത്ത് വേറെ പൊട്ടും കാര്യങ്ങളൊന്നുമില്ല ആ വൊമിറ്റിംഗ് ഇല്ല പക്ഷേ തലവേദന തലകറക്കം പിന്നെ മൂക്കിൽ നിന്ന് നല്ലോണം ബ്ലഡ് വരുന്നുണ്ട്

അതേയല്ലേ അപ്പം എപ്പോഴത്തേക്കാ ചെയ്യാൻ പറ്റുക അതേയല്ലേ അല്ലേൽ വരുമ്പം വിളിച്ചാലും മതിയാവുമോ അതേയല്ലേ ആ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡാണ്

ആ ആ ഗവൺമെൻറ്റിലാണെങ്കിൽ ഇത്ര ഗവൺമെൻറ്റിൽ ആണെങ്കിലും ഇത് ഈ പൈസ തന്നെ വരും എടുക്കേണ്ടി വരുമല്ലേ അപ്പോൾ ഇപ്പോൾ നാളെ എടുക്കാം നാളെ രാവിലെ ബുക്ക് ചെയ്താൽ വൈകുന്നേരം എടുക്കാൻ പറ്റുമോ ആ ഓക്കെ ഓക്കെ അതേയല്ലേ ആ എന്നാൽ അപ്പോഴത്തേക്ക് പറഞ്ഞാലും മതി അങ്ങനെ ആണെങ്കിൽ നാളെ രാവിലത്തേക്ക് ഓക്കെ നോക്കീട്ടൊന്ന് പറയുമോ